ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഞങ്ങൾ കളിക്കുന്ന കളികളാണ് ഏറുപന്ത് പിന്നെ കാക്കേം കുയിലും എ ബി സി പിന്നെ ഗോ കളി പിന്നെ വാല് വാല് പറിക്കണ കളി കണ്ണ് കെട്ടിക്കളി സാറ്റ് കളി പിന്നെ കോയിൻസൊക്കെ കുഴീലിട്ടെറിഞ്ഞ് അത് കളിക്കുന്നു അതൊക്കെ ഞങ്ങൾ കുട്ടിക്കാലത്ത് കളിക്കുന്നതാണ് അതിൽ അതിനെപ്പറ്റി വിവരിക്കാൻ പറയാണെങ്കിൽ ഇപ്പം നമ്മൾ പല ഒരു പത്ത് പതിനഞ്ച് കുഴികൾ ഉണ്ടാക്കിയിട്ട് ഒരാൾ അത് ഉരുട്ടും ഓരോ കുഴിയിലും പല പല കുഴിയിലായിട്ട് ഓരോ ബോള് വന്ന് വീഴുന്നത് അപ്പം ആ ബോള് ഒരാൾ എടുത്തെറിയാൻ നിൽക്കുമ്പം ആ ബോളെടുത്ത് എറിയും അപ്പം എല്ലാവരും ഓടും അപ്പം ആർക്കിട്ട് കൊള്ളുന്നോ ആ വ്യക്തി ഈ പന്തുരുട്ടാൻ നിക്കണം അങ്ങനെ പിന്നെ അതൊരു വാൽ വാൽ പറിക്കുന്നൂന്ന് പറഞ്ഞാൽ നമ്മൾ മൂന്ന് നാല് അഞ്ച് പേര് കളിക്കണുണ്ട് ഓർത്തോ അപ്പം ഓരോരുത്തരുടെ ബാക്കിൽ നമ്മളിങ്ങനെ റിബൺ കൊണ്ടോ ഓലകൊണ്ടോ വാൽ കുത്തും അന്നിട്ട് ഈ വാൽ മറ്റുള്ളവർ പറിക്കാതെ നോക്കണം അങ്ങനെ പിന്നെ സാറ്റ് കളീന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണ് പൊത്തീട്ട് നമ്മൾ ഒന്ന് രണ്ട് എന്ന് അങ്ങനെ ഒരു പത്ത് വരെ എണ്ണും അപ്പം മറ്റ് കൂട്ടുകാർ പോയി ഓ ഒളിക്കും അതിപ്പം ഇവർ നമ്മൾ കണ്ട് പിടിച്ച് നമ്മൾ ഓടി വന്ന് സാറ്റ് മ്മേ തൊടണം അല്ലേ അവർ വന്ന് തൊടും അങ്ങനെ അങ്ങനത്തെ പല കളികളും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ കാക്കേം കുയിലും കൂടെ കളിക്കാം കാക്ക കുയിലും നമ്മളിങ്ങനെ കൈ ഈ തള്ളവിരലും ഈ കുഞ്ഞു വിരലും കൂടി ഇങ്ങനെ പിടിച്ചിട്ടില്ലേ നമ്മൾ ഇങ്ങനെ തുപ്പുവേ തുപ്പുമ്പം അത് കയ്യിലൊന്നും വീഴാൻ പാടില്ല അപ്പം അതിൻ്റെ ഇടക്ക് കൂടെ പോകണം ടച്ച് ചെയ്യാണ്ട് വീഴണം അപ്പം അതിനകത്ത് ജയിക്കുന്നവർ മറ്റുള്ളവരും അതിനകത്ത് ഇപ്പം നമ്മൾ തുപ്പുമ്പം കയ്യിൽ വീണിട്ടുണ്ടെങ്കിൽ അവർ അവരായിരിക്കണം നമ്മളെയോക്കെ ഇട്ടോടിക്കുന്നത് അങ്ങനെ അങ്ങനെ ഓടിച്ച് കളിക്കും ഞങ്ങൾ നല്ല കളിയാണ്